സാധാരണ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ കല്യാണം പോലെയുള്ള വലിയ ചടങ്ങുകള് അല്ലെങ്കിൽ കല്യാണം അതുപോലെ വലിയൊരു ഫാമിലി ഗെറ്റുഗേദർ അല്ലെങ്കില് ഏതെങ്കിലും ഏതെങ്കിലും ചടങ്ങാണെങ്കിലും ശരി ഞങ്ങള് എങ്ങനെയാണ് വെള്ളം ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ടാങ്കുകളില് വരുന്ന വെള്ളത്തെ എല്ലാം ശേഖരിക്കും ശേഖരിച്ചതിനുശേഷം അത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാറുള്ളത് കാരണം പൈപ്പ് ലൈനിലൂടെ എല്ലാം വെള്ളം വന്നിട്ട് ടാങ്കുകളിലും ഡ്രമ്മുകളിലും അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം നമ്മള് ശേഖരിച്ചു വയ്ക്കും കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ള സമയങ്ങളാണ് അതൊക്കെ അതുകൊണ്ടുതന്നെ നമ്മള് ശേഖരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമായതുകൊണ്ടുതന്നെ വലിയ വലിയ ടാങ്കുകളിലൊക്കെയാണ് ശേഖരിക്കുക എന്നിട്ട് ആവശ്യാനുസരണം അതു എടുത്തു ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിനെല്ലാം ഒര് ക്രമീകരണം വേണം കാരണം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ വെള്ളം കിട്ടിയില്ലെന്നു വരാം അതുകൊണ്ടുതന്നെ ഇത് ശേഖരിച്ചു വയ്ക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലെല്ലാം അങ്ങനെയാണ് ചെയ്തുവരാറ് അതുപോലെ ഓഡിറ്റോറിയത്തിൽ ആണെങ്കിലും അവര് അവരെ പറഞ്ഞു ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവര് അത്രയും എമൗണ്ടിലുള്ള വെള്ളം അവര് സേവ് ചെയ്തു വയ്ക്കും അതുപോലെ ഇപ്പോൾ കറണ്ടും കാര്യങ്ങളുമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തില് നടക്കാവുന്നതാണ് കാരണം പൈപ്പിലൂടെയുള്ള വെള്ളം ആണെങ്കിലും ടാങ്കുകളില് വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാല് ശേഖരണവും ഉണ്ട് എല്ലാത്തിനും സൗകര്യമുള്ളതുകൊണ്ട് തന്നെ അതില് ഒരു പ്രശ്നം വരാറില്ല ഞങ്ങളുടെ നാടുകളിലൊക്കെ കല്യാണം പോലെയുള്ള ചടങ്ങുകളിലെല്ലാം വെള്ളത്തിന് പ്രശ്നം വരാറില്ല കാരണം ഇത് ഇങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചു വയ്ക്കുന്നത്